ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഇരുപത്തിയഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി പതിനേഴ് അഞ്ച് അഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ്